കേ കേരളം സന്ദർശിക്കുമ്പോൾ വിനോദസഞ്ചാരികൾക്ക് പരീക്ഷിക്കാവുന്ന വിനോദരൂപങ്ങളാണ് തെയ്യം പ്രാദേശിക ഉത്സവങ്ങൾ തെരുവ് പ്രകടനങ്ങൾ പ്രാദേശ് പരമ്പരാഗത കലകൾ അതിൽ തെയ്യത്തിൻ്റെ കണ്ണൂരാണ് തെയ്യത്തിൻ്റെ പ്രധാനപ്പെട്ട മെയിൻ തെയ്യം ആഘോഷം കൊണ്ടുനടക്കുന്ന സ്ഥലം പിന്നെ അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ കടൽത്തീരമുളള കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് കോവളം ആലപ്പുഴ വർക്കല ശംഖുമുഖം ചെറായി ഫോർട്ട് കൊച്ചി തുടങ്ങിയ വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്ന പല കടൽതീരങ്ങളും കേരളത്തിലുണ്ട് കെട്ടുവള്ളങ്ങളുടെയും കായലുകളുടെയും മറ്റ് പ്രധാന ആകർഷണ സ്ഥലമാണ് വേമ്പനാട്ട് കായൽ അഷ്ടമുടിക്കായൽ കുമരകം പതിരാമണൽ തുടങ്ങിയവ എടുത്തു പറയണ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് നെയ്യാർ മൂന്നാർ നെല്ലിയാമ്പതി ദേവികുളം പൊന്മുടി വയനാട് പൈതൽമല വാഗമൺ എന്നിവയാണ് ചില പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് പെരുന്തേനരുവി റാന്നിജി താലൂക്കിലെ വിച്ചൂരിച്ചിറ പഞ്ചായത്തിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പിന്നെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ തിച്ച് ശബരിമല ഗുരുവായൂർ പത്മനാഭ ക്ഷേത്രം വൈക്കം ഏറ്റുമാനൂർ ആറന്മുള തൃപ്പൂണിത്തറ തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രം എല്ലാം പ്രെതം പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളാണ്